ഇന്ന് മൃഗ സംരക്ഷണ രംഗത്ത് നേരിടുന്ന വല്യൊരു പ്രശ്നനങ്ങളിലൊന്നാണ് രോഗങ്ങൾ അതിൽ തന്നെ പ്രധാനപ്പെട്ട രോഗമാണ് കുളമ്പ് രോഗം അകിടുവീക്കം പോലുള്ളത് കുളമ്പ് രോഗം എന്നു പറയുന്നത് വൃത്തി ഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ പശുക്കളും അല്ലെങ്കിൽ കാലികളും നടന്നതു മൂലമോ അല്ലെങ്കിൽ ജീവിക്കുന്നത് മൂലമോ ഉണ്ടാകുന്നൊരു രോഗമാണ് ഇത് തടയാൻ ആധുനിക രീതിയിലും അതുപോലെ തന്നെ പാരമ്പര്യ രീതിലും കുറേ വിദ്യകളെല്ലാം നമ്മുടെ കയ്യിൽ ഇന്ന് ഉണ്ട് അതിൽ ഒന്നാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് കാൽ ശുദ്ധമായിട്ട് കഴുകുക രണ്ടാമത്തേത് മഞ്ഞപ്പൊടി ചേർത്ത ചൂടുവെള്ളം ഉപയോഗിച്ച് കാല് ശുദ്ധമായിട്ട് കഴുകുക അകിട് വീക്കം വരാതിരിക്കാൻ അകിട് നന്നായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകിയാൽ അകിട് വീക്കം ഒരു പരിധി വരെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ കഴിയും